സാങ്കേതികവിദ്യ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഒരു രീതിയിലാണ് വളർന്നിട്ടുള്ളത് എല്ലാവരുടെയും ജീവിതം മാറ്റി മറിച്ചതു പോലെ തന്നെ എൻ്റെ ജീവിതം നല്ല രീതിയിൽ തന്നെ സാങ്കേതികദ്യ മാറ്റി മറിച്ചിട്ടുണ്ട് കാരണം ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ മൈനോട്ട് കാര്യം പോലും നമുക്ക് അത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചെയ്യുമ്പോൾ മുമ്പ് നമ്മൾ ചെയ്തിരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി എളുപ്പത്തിൽ അതിലേറെ ലാഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഗ്രോസറി മുതൽ ഏറ്റവും വലിയ ഇനി വെഹിക്കിൾ വരെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യയുടെ ഈ വളർച്ചയയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുക എന്നുള്ളതൊരു വലിയ ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനക്ക് ആദ്യമായിട്ട് ഫീൽ ചെയതിട്ടുള്ളതും ഇപ്പോൾ എൻ്റെ കേസ് എടുത്തു നോക്കുകയാണേങ്കിൽ തന്നെ ഞാൻ ഫലിപ്പ്കാർട്ടിൽ നിന്ന് കുറേ സാധനം വാങ്ങുന്ന ആളാണ് അപ്പം ഇതൊന്നും കുറച്ചു മുമ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ സാധ്യമല്ല ഇറ്റ്സ് നോട് നമുക്ക് ചിന്തിക്കാൻ പോലും ഇമാജൻ ചെയ്യൻ പോലും പറ്റാത്ത സാധനങ്ങളാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ ചെയ്യുന്നത് എന്താണെന്ന് വച്ചാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യൻ മൂവിയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ജസ്റ്റ് ഡിസ്ട്രിക്റ്റ് എന്നു പറയുന്ന ആപ്പിൽ ഞാൻ സ്ഥിരമായിട്ട് മൂവിക്ക് പോകുന്ന ആളാണ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഓൺലൈനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇഷ്ടുള്ള സീറ്റ് നോക്കിയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പിന്നെ സാങ്കേതികവിദ്യയുടെ ഏറ്റവും വലിയ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ചാറ്റ് ജി പി ടി എന്നു പറയുന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്ലിജൻസ് എന്നു പറയാം ആ ഒരു സാങ്കേതിക വിദ്യ എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ഒരു യൂസ് ചെയ്യുന്ന പോപ്പുലർ ആയിട്ടുള്ള വേർഷനാണ് ചാറ്റ് ജി പി ടി

എന്നുള്ള ഒരു വലിയ ദൗത്യം വളരെ എളുപ്പത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരിക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു കവിത എഴുതണം എനിക്ക് ജസ്റ്റ് എന്ത് എൻ്റെ മനസ്സിലുള്ള ആശയങ്ങളൊന്നും പ്രോമ്റ്റായിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതി അത് വളരെ നല്ല ഒരു കവിതയാക്കിയിട്ട് ചാറ്റ് ജി പി ടി ഇങ്ങോട്ട് എഴുതി തരും പിന്നെ അതുപോലെ എനിക്ക് ഒരു കഥ വേണം അങ്ങനെയെങ്കിൽ അത് ചോദിക്കാം അല്ലെങ്കിൽ ഒരു സ്പീച്ച് നല്ല ഡെലിവറി ചെയ്യാതെ അപ്പം അതൊന്ന് റിട്ടേൺ ആയിട്ട് കിട്ടണം അങ്ങനെ ചോദിക്കാം അത് ചെയ്തു തരും അങ്ങനെ മൊത്തത്തിൽ ഓൾ ആൻഡ് ഔട്ട് എന്തൊക്കെയാണ് പരിപാടി നമുക്ക് വേണോ എന്തൊക്കെയാണ് ആവശ്യങ്ങളുണ്ടോ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് നമുക്ക് ആവശ്യമുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു തരിക എന്നുള്ളതാണ് അതുപോലെ സാങ്കേതികവിദ്യയുടെ വളർച്ച കൊണ്ട് ഇന്ന് എന്തെല്ലാം പുരോഗതി ഉണ്ടായി ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ പ്ലാൻസ് പദ്ധതികൾ എടുത്തു നോക്കുക ഇപ്പം റോഡുകളിൽ ക്യാമറ എ ഐ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് കാരണം ഹെൽമറ്റിടാതെ യാത്ര ചെയ്യുന്നവരൊക്കെ ഒന്ന് പേടിക്കും ഒന്ന് ഭയക്കും കാരണം ഇത് ഇത്രയും കാലം പോലീസിനെ നോക്കിയാൽ മതിയായിരുന്നു അവർക്ക് കാരണം അന്ന് സാങ്കേതിക ഇത്ര വികസിച്ചിച്ചിട്ടില്ല ഇപ്പോൾ ഹെൽമെറ്റിടാതെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ക്യാമറ പിടിച്ചിട്ട് നേരെ സൈറ്റിലേക്ക് കേറ്റിയിട്ട് ഫൈന അടയ്ക്കണം ഫൈൻ അടയ്ക്കണം ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പം അത്തരത്തോളം നമ്മുടെ സാങ്കേതിക വിദ്യ എന്താണ് കാലങ്ങൾ കാലങ്ങൾക്ക് അനുസരിച്ചു കാലത്തിൻ്റെ കുത്തൊഴിക്കൽ അങ്ങനെ വികസിച്ചു ദ്രുതഗതിയിൽ അങ്ങനെ മുന്നോട്ട് കയറി പോയിക്കൊണ്ടിരിക്കണം അ തീർച്ചയായിട്ടും ഞാൻ ഇതിൽ അഭിമാനം കൊള്ളുന്നു നമ്മുടെ ഈ മനുഷ്യന്മാരുടെ ഈ ഒരു നേട്ടത്തിൽ അതുപോലെ ഞാൻ ഇതിൻ്റെ ഒരു വളരെ വലിയ ഉപഭോക്തവാണെന്ന് പറയാൻ പറ്റും കാരണം നല്ല രീതിയിൽ തന്നെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് സാങ്കേതികവിദ്യ എന്നുള്ളതാണ് സങ്കേതിക വിദ്യ വളരുന്ന കാലത്ത് ഇതുപോലെ കുറേ ഈ അവസരങ്ങളിലൊക്കെ ഫ്രോഡ് ചെയ്യാൻ നടക്കുന്ന കുറേ പേരുണ്ട് അത് സ്വാഭാവികമാണ് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ നല്ല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്നേ പറയാൻ പറ്റു